ഹെഡ്സെറ്റ് കൊണ്ട് എനിക്ക് പറയാവുന്ന ഏറ്റവും വലിയ ഗുണം എന്തെന്ന് വെച്ചാൽ ഇന്ന് ഉണ്ടായ ഇന്നീ നാട്ടിലുള്ള എഐ ക്യാമറകൾ എഐ ക്യാമറകൾക്ക് മുന്നിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് കണ്ടാൽ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് കണ്ടാൽ വലിയ തോതിലുള്ള ഫൈൻ ആണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് ഇതെങ്ങനെ ആണെങ്കിലും അതിൻ്റെ മുന്നിൽ കൂടെ പോയാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക ആണെങ്കിൽ പിടിക്കപ്പെടുക തന്നെ ചെയ്യും ഈ ഹെഡ്സെറ്റ് ഉള്ളത് കൊണ്ട് ഉള്ളത് കൊണ്ടുള്ള ഗുണംന്ന് വെച്ചാൽ ഹെഡ്സെറ്റും ഫോണുമായി കണക്റ്റ് ചെയ്ത് നമുക്ക് ഈ ചെവിയിൽ മാത്രം വെച്ച് രണ്ട് കയ്യും ഹാൻഡിലിൻ മേൽ വെച്ച് ഡ്രൈവ് ചെയ്യാവുന്നതാണ് അത്കൊണ്ട് നമ്മുക്ക് റോഡിലേക്ക് കോൺസൻട്രേഷനും ഉണ്ടാവും രണ്ട് കയ്യും ഹാൻഡിലിൽ പവറും ഉണ്ടാകും അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഹെഡ്സെറ്റ് ഗുണം തന്നെയാണ് ഈ നാട്ടിലൊള്ളവർക്ക് ആക്സിഡൻറ്റും കുറഞ്ഞ് കിട്ടും ഫൈനും കുറഞ്ഞു കിട്ടും എല്ലാം കൊണ്ടും ഈ ഹെഡ്സെറ്റ് കൊണ്ടുള്ള ഗുണമാണ് എനിക്ക് ഇത് പറയാനുള്ളത്